ഇപ്പം നമ്മൾ കൂടുതൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കാലുകളും കൈകളെല്ലാം നല്ല രീതിയിൽ അതായത് വഴങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഓട്ടം ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതീല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ അതായത് നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷവും പിന്നെ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ വർക്ക് ഔട്ട് നല്ല രീതിയിൽ ചെയ്യുക നല്ല രീതിയിലുള്ള വർക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലോടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓട്ടം നിങ്ങളെ നല്ല രീതിയിൽ ഫിറ്റും ആരോഗ്യമുള്ളവന്മ ഉള്ളവരുമായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നല്ല രീഹിയിലുള്ള വർക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ബദൽ റണ്ണിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യാണ്ട് നമ്മൾക്ക് നല്ല രീതിയിലുള്ള വർക്ക് ഔട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഒരു എണീക്കുന്നത്തിന് മുൻപേ ഒരു നാല് മണി ആ ടൈമിലൊക്കെ നമ്മൾ ഒരു ഒരു കിലോ മീറ്റർ രണ്ട് കിലോ മീറ്ററൊക്കെ ഓടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്